എനിക്ക് പഠിക്കാൻ ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഉള്ളത് പിന്നെ കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ടാണ് അങ്ങനെ കേക്കുകൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് പ്രാവശ്യം ഞാൻ അത് കേക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല കേക്ക് ഉണ്ടാക്കേണ്ട ഈ യൂട്യൂബുകളും ഒക്കെ കണ്ടിട്ട് അങ്ങനെ കേക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കിറ്റുകളൊക്കെ വാങ്ങീട്ടെല്ലാം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വരെ ഒന്നും വിജയ വിജയിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായുള്ള അളവ് പാത്രങ്ങൾ എൻ്റെ കയ്യിലില്ല എല്ലാം കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവ് പാത്രങ്ങളും അതിനുള്ള കൃത്യമായ അളവ് അനുസരിച്ചിട്ടേ അതിന്റെയൊക്കെ ഓരോ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂള്ളൂ എന്നാലേ ആ കേക്കൊരു കൃത്യമായ ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള അളവ് പാത്രങ്ങള് കൈവശം ഇല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ കേക്കുകൾ ഇപ്പം എല്ലാ യൂട്യൂബ് ചാനലുകളെല്ലാം പറയുന്നുണ്ട് മൈക്രോവേവ് ഓവൻ ഒക്കെ ഇല്ലാണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അതുപോലെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടിണ്ട് ഓവൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അതിന്റകത്ത് തോന്നീട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പം ഒരു പ്രധാന ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഓവൻ ഇല്ലാത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര ഒരു കൃത്യമായിട്ടൊരു കേക്ക് ആയിട്ട് നമുക്ക് കിട്ടൂല്ല എങ്ങനെയെങ്കിലും ഒരു കേക്കിൻ്റെ രീതിയിലോട്ട് വരുമെന്നല്ലാണ്ട് അങ്ങനെ കേക്ക് ആയി ശരിയായ ഒരു കേക്കായിട്ട് അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കിട്ടുമെന്ന് തോന്നീട്ടില്ല അത് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നീട്ടുള്ളത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നീട്ടുള്ളത് ഏറ്റവും ഇഷ്ടം ഉള്ളതും ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ടാണ് അപ്പം ആ ബിരിയാണി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അരി നമ്മൾ ബിരിയാണീൻ്റെ അരി ഉണ്ടാക്കുമ്പോൾ ഇടുമ്പോൾ അതിന് വെള്ളം ചേർക്കണ്ടെ അപ്പോൾ ആ ആ വെള്ളം ചേർക്കുമ്പോൾ അതിലുള്ള മിസ്റ്റേക്ക് ആണുണ്ടാവല് ഒട്ടുമിക്ക പ്രാവശ്യങ്ങളിലും ഒന്നുകിൽ വെള്ളം കുറഞ്ഞ് പോകും ഇല്ലെങ്കിൽ വെള്ളം കൂടി പോകും ഇല്ലേൽ അടിയിൽ പിടിച്ച് പോവുക അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ചാനലുകളെല്ലാം നോക്കി മനസ്സിലാക്കീട്ടുണ്ടെങ്കിലും അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാ ഉള്ളത് ബിരിയാണി ഉണ്ടാക്കുക പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നാടൻ സദ്യകൾ നാടൻ സദ്യകൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം കൂട്ട്കറി ഉണ്ടാക്കാനാണ് കൂട്ട് എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം കൂട്ടുകറി ഉണ്ടാക്കാൻ ഇഷ്ടം കൂട്ടുകറി എല്ലാം ഭയങ്കര ഇഷ്ടമാ പക്ഷെ കൂട്ട് കറി നമ്മൾ ഞാൻ ഇത് വരെ എനിക്ക് ഈ സദ്യകളിലൊക്കെ കഴിക്കുന്ന ഒരു കൂട്ട്കറീൻ്റെ രുചിയിലേക്ക് എനിക്ക് ഇതുവരെ കിട്ടീട്ടില്ല അതെന്ത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടും ഇല്ല എങ്ങനെ എപ്പോഴുണ്ടാക്കിയാലും ഒരു എൻ്റെ ഒരു രീതിയിലുള്ള രുചിയല്ലാതെ നമ്മൾ പുറത്ത് പോയി ഒരു കല്യാണസദ്യക്കൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയിൽ ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഈ മൂന്ന് സാധനങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് കേക്ക് ഒന്ന് ബിരിയാണി ഒന്ന് കൂട്ടുകറി എന്നീ ഈ മൂന്ന് സാധനങ്ങളാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്